സാർ എൻ്റെ നെൽ കൃഷിക്കുള്ള വിള ഇൻഷുറൻസിനായിട്ട് ഞാൻ അവിടെ അപേക്ഷിച്ചിരുന്നു അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ എന്തായി ഇതു വരെയുള്ള തീരുമാനങ്ങൾ ഒന്നും അറിഞ്ഞില്ല ആ വിള ഇൻഷുറൻസ് എൻ്റെ വിളകൾ മുഞ്ഞ ബാധിച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ഇൻഷുറൻസ് ആണ് അതിൻ്റെ ഇപ്പോൾ എ എവിടം വരെ ആയി എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല താങ്കൾക്ക് അതിൻ്റെ കാര്യത്തിനായിട്ട് എന്നെ സഹായിക്കാൻ പറ്റുമോ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് അതിനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് പറയാൻ പറ്റുമോ വിള ഇൻഷുറൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത് തന്നിട്ടുള്ള കത്തിൻ്റെ സ്ഥിതി എന്തായി ഇതൊക്കെ ഒന്ന് അറിയണമായിരുന്നു വിള ഇൻഷുറൻസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഞാൻ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട് അതിലെ എൻ്റെ വിലാസവും പിൻ കോഡുമൊക്കെ കറക്റ്റ് ആണ് അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നോട് ഒന്ന് പറയാമോ എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് വിള ഇൻഷുറൻസിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് അയച്ചിരുന്നത് അതിനെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുഞ്ഞേടെ ആക്രമണം വളരെ ഭയങ്കരമാണ് അതിനെ പറ്റിയാണ് എന്തെങ്കിലും അതിൻ്റെ കിട്ടുവാണെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു നെൽകൃഷി ഏറെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു